ഏറ്റവും കൂടുതല് ആൾക്കാര് ഇഷ്ടപ്പെടുന്ന കൈകൊണ്ട് നമ്മുടെ സ്വന്തം കഴിവില് നമ്മുടെ ഹാൻഡ് മെയ്ഡ് ഹാൻഡ് മെയ്ഡ് എന്നുവെച്ചാൽ കൈകൊണ്ട് ഉണ്ടാക്കിയ സാധനകൾക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡു വരുന്നത് നമുക്ക് മെഷീൻ വെച്ച് പലതും ഉണ്ടാക്കും അത് ആർക്കും പറ്റും പഷേ കൈ കൊണ്ട് ഉണ്ടാക്കുന്നത് അവർ അവരവരുടെ കഴിവിനനുസരിച്ച് മാത്രമാണ് അവരുടെ എന്താ പറയുക കഴിവിന് അനുസരിച്ച് മാത്രമേ അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ നമുക്ക് മെഷീൻ ആകുമ്പം മെഷീനിലോട്ട് നമുക്ക് കൊടുത്തത് മതി അപ്പം ഇപ്പഴത്തെ ടെക്നോളജി വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫീഡ് ചെയ്ത് കൊടുത്താൽ മതി അവര് നമുക്ക് സാധനം തരും പക്ഷേ ഹാൻഡിക്രഫ്ട് കൈകൊണ്ട് കരകൗശല കൈ കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് അത് ഇപ്പം ഒരു ചെറിയ ചിത്രമാവട്ടെ അല്ലെങ്കിൽ നമ്മള് എന്താ പറയുക കൈകൊണ്ടുണ്ടാക്കുന്ന ഒരു കാർഡോ ഇപ്പം ക്രിസ്മസ് കാർഡുണ്ട് ബെർത്ത് ഡേ കാർഡുണ്ട് അവ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പം എന്ന് വെച്ചാൽ സ്വന്തം ഹാൻഡ് വർക് കൈകൊണ്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായ മൂല്യമുണ്ട് പക്ഷേ നമുക്ക് മെഷീനിലോക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരുപാട് സാധനങ്ങൾ ഇതേപോലെ ഉണ്ടാക്കാം ഒരു സെക്കൻഡ് കൊണ്ടോ ഒരു മിനിറ്റുകൊണ്ടോ ഒക്കെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാം പക്ഷേ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് ഒരുപാട് സമയം ഒരു പാട് സമയം നമുക്ക് വേണ്ടിവരും അപ്പം അതുകൊണ്ടാണ് അതിന് അതിൻ്റെതായ മൂല്യമുള്ളത് ഈ കൈകൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ അതിപ്പം ചിലത് ഒരാൾക്ക് ഇഷ്ടപെടുവാണെങ്കിൽ ചിലപ്പോൾ കോടികൾ വില വരുന്ന വിലവരുന്ന ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾ ഉണ്ട് അത് അവർക്ക് ഇഷ്ടപെടുകയാണെങ്കിൽ അത്രക്കും വില കൊടുത്ത് സാധനങ്ങൾ മേടിക്കാൻ അവർക്ക് സാധിക്കും പിന്നെ എന്താപറയുക കരകൗശല വസ്തുക്കൾ എന്നുവെച്ചാൽ എന്തെങ്കിലും ചെറിയ ചെറിയ വസ്തുക്കൾ കൊണ്ട് വലിയ എന്തെങ്കിലും എന്ന് വെച്ചാൽ അത് വിലപിടുപ്പുള്ള സാധനങ്ങൾ എന്തെങ്കിലും അത് വെച്ച് നിർമ്മിക്കുന്ന അതും നല്ലൊരു കഴിവ് തന്നെയാണ് പിന്നെ ഇതുവെച്ച ഇതുവെച്ച് നമുക്ക് എന്താ പറയുക നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കാർഡോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ചിത്രമോ നമുക്ക് സമ്മാനിക്കാൻ സാധിക്കും അങ്ങനെ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് പേർക്ക് രണ്ട് രണ്ട് സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടവർക്ക് കൊടുത്തിട്ട് അവർക്ക് ഒരുപാട് ഇഷ്ടപെട്ടിട്ടുണ്ട് അപ്പ അതാണ് നമ്മുടെ പിന്നെ ഹാൻഡ് ഇതിൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ മൂല്യം അത് ആർക്കും ഇഷ്ടപെടും ഇഷ്ടപെടുന്നവര് അത് വളരെ സന്തോഷത്തോടെ മേടിക്കും അത് അവർക്കൊരു ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു സമ്മാനം തന്നെയായിരിക്കും അത് വിലപിടിപ്പുള്ള സമ്മാനം തന്നെയായിരിക്കും നമ്മള് പൈസകൊടുത്ത് ഒരുസാധനം മേടിച്ചുകൊടുക്കുന്നതിനെ കഴിഞ്ഞു വളരെ ഏറെ മൂല്യം ഉള്ളതായിരിക്കും നമ്മള് സ്വന്തം കയ്യാലെ നിർമ്മിച്ച് നമ്മുടെ സമയം ഒരുപാട് സമയമെടുക്കും അത് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് അപ്പം അത് അങ്ങനെ ഉണ്ടാക്കികൊടുക്കുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാവും അവർക്കും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും എന്ന് വെച്ചാൽ ഇത്രയും വിലപിടിപ്പുള്ള സാധനം കിട്ടിയല്ലോ എന്നുള്ളതിനെപ്പറ്റിയുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ഇതുതന്നെയായിരിക്കും അവർക്ക് കിട്ടി കിട്ടുന്നതിൽ അവരുടെ ജീവിതത്തില് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും അത് കരകൗശല കരകൗശലവസ്തു ആ എന്നുപറയുന്ന ഹാൻഡി ക്രാഫ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇപ്പം നമുക്ക് കടകളിൽ പോയാൽ ഹാൻഡിക്രഫ്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും കരകൗശല വസ്തുക്കൾ വാങ്ങിക്കാൻ കിട്ടും പക്ഷേ നമ്മുടെ പ്രീയപെട്ടവർക്ക് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കി നമ്മളായിട്ട് കൊടുക്കുവാണെങ്കിൽ അത് വളരെ ഏറെ വിലപ്പെട്ടതായിരിക്കും അവർക്ക് കൂടുതല് പ്രയോജനപ്പെടും പ്രയോജനപ്പെടും മീൻസ് അവർക്ക് അത് അവരുടെ ഷോ കേസിൽ വെക്കുകയോ ഉപഹാരം ചെയ്ത ആരെങ്കിലും ഉണ്ടാക്കിയതാണെന്നു പറയുമ്പോൾ അത് ഭയങ്കര ഒരു ക്രെഡിറ്റ് തന്നെയാണ് നമ്മള് ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ കാർഡോ അല്ലെങ്കില് എന്തെങ്കിലും ചിത്രം നമുക്കിപ്പോൾ ഒരു ചിത്രം നമുക്ക് പിന്നെ നമുക്ക് ഇപ്പോൾ പ്രിൻറ്ററിലൊക്കെ കൊടുക്കുവാണെങ്കില് പെട്ടെന്ന് പ്രിൻറ്ററില് അടിച്ച് കിട്ടും പക്ഷേ അത് ഉണ്ടാക്കാൻ വരച്ച് വരയെന്നു പറയുന്നത് ഒരു കഴിവ് തന്നെയാണ് വരച്ച് പറക്കി കൊടുക്കുമ്പോൾ അതിൻ്റേതായ അതിൻ്റെതായ പ്രശ്നങ്ങള് പ്രശ്നങ്ങള് അതിൻ്റെതായ വിലയുണ്ട് എന്ന് തന്നെ പറയാം പിന്നെ എന്താ പറയുക നമ്മളിപ്പ ആൾക്കാർക്ക് ആൾക്കാർക്ക് നമുക്ക് പ്രീയപ്പെട്ടവർക്ക് സമ്മാനിക്കുമ്പം ഒരു വര ഒരു വരച്ചെടുക്കാൻ നമ്മള് ശ്രമിക്കും അയാളുടെ ചിത്രങ്ങൾ നമ്മൾ വരച്ച് കൊടുക്കുവാണെങ്കില് അയാളുടെ ചിത്രം നമ്മൾ വരച്ചു കൊടുക്കുന്നത് അവർക്ക് വളരെ ഇഷ്ടപെടും നമുക്ക് അയാളുടെ ചിത്രം നമ്മള് മനസ്സിൽ കണ്ടത് നമ്മുടെ സ്വന്തം കയ്യാൽ വരയ്ക്കുന്നെന്ന് പറയുന്നത് ഒരു വലിയ കഴിവ്തന്നെയാണ് അതില് വരച്ച് അവരെ ഏൽപ്പിക്കുക അത് ഒരു വലിയ ഒരു കാര്യം തന്നെയാണ് അവർക്കും ജീവിതത്തിൽ കിട്ടുന്നതിൽ ഏറ്റവും വലിയ സമ്മാനമായിരിക്കും അവരുടെ ചിത്രങ്ങള് അവരുടെ പ്രീയപ്പെട്ടവര് അവർക്കുവേണ്ടി വരച്ച് നല്ല രീതിയിൽ വരച്ച് അവർക്ക് ഏൽപ്പിക്കുമ്പോൾ അവർക്കും വലിയൊരു അവർക്കും സന്തോഷം തന്നെയാണ് അതും അവർ അവർക്ക് അത് ഒരു വിലപ്പെട്ട മൂല്യം തന്നെയായിരിക്കും